നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് കായിക വിനോദങ്ങളും കായിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൽ എടുത്ത് എനിക്ക് പറയാൻ ഇപ്പം തോന്നുന്നത് നമ്മുടെ എസ് എം സ്ട്രീറ്റിൽ ഈ അടുത്തായിട്ട് അത് നഗരസഭേൻ്റെ ഇതിലാണോ എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു മോക്ക് നാടകം മോക്ക് നാടകം പോലത്തെയൊരു അതിനെ മോക്ക് നാടകമാണോ എന്ന് അറിയില്ല ഒരു നാടകം പോലത്തെ ഒരു ജസ്റ്റ് നമ്മളെ സ്ട്രീറ്റിൽ അവതരിപ്പിച്ച ഒരു പരിപാടിയാണ് കുറച്ച് പേർ ഒരു കുറച്ച് കലാകാരന്മാർ കൂടിയിട്ട് നഗരസഭയാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആശയം നമ്മുടെ കോഴിക്കോട് ജില്ലയിൻ്റെ പിന്നെ കോഴിക്കോട് ജില്ലയുടെ ആ ഒരു വ്യത്യസ്തമായ ഭക്ഷണത്തോട് ഉള്ള താല്പര്യം ഭക്ഷണത്തിനോടുള്ള അഭിനിവേശം പിന്നെ തെയ്യം അങ്ങനത്തെ കലാരൂപ കലാരൂപങ്ങളോട് ഉള്ള ഒരു ഇത് അതായിരുന്നു അതിൻ്റെ ഒരു പ്രമേയം അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസിലാകും ഓ ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പ്രദേശത്തും നമ്മൾ എല്ലായിടത്തും ഉള്ളതാണല്ലോ അപ്പം നമ്മൾ എല്ലാം ഒറ്റക്കെട്ടാണ് നമ്മ് നമ്മുടെ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും നമ്മുടെ കോഴിക്കോട് നാട്ടിൽ കോഴിക്കോടിലുള്ള ജീവിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരു കുടുംബമാണ് എന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു രീതിയിൽ ആയിരുന്നു ആ നാടകം അപ്പം അതെനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്